പൊതുവെ ഞാൻ രാവിലെ എണീച്ച് ഓടാൻ പോകാറുണ്ട് ഓട്ടം ആരോഗ്യത്തിന് നല്ലതാണ് നമ്മളുടെ ഫുഡ് നമ്മളുടെ ഈ ഈ പണ്ടത്തെ കാലത്തേ അപേക്ഷിച്ച് നമ്മൾ ഒരുപാട് പണ്ടത്തെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചാലും അതിന് അനുസരിച്ച് അവർ പണിയെടുക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ കമ്പ്യൂട്ടർ യുഗം ആയത് കൊണ്ട് തന്നെ നമ്മൾ അധികം പണി മേലനങ്ങി പണി എടുക്കാറില്ല എന്നതാണ് കാര്യം അതുകൊണ്ടാണ് നമ്മൾ ഓട്ടത്തിന് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം നമ്മൾ അത് അനുസരിച്ച് നമ്മൾ ഫാസ്റ്റ് ഫുഡ് ആണ് അധികവും യൂസ് ചെയ്യാറ് നമ്മൾ അതിന് അനുസരിച്ച് നമ്മൾ വർക്ക് ഔട്ട് കൊടുത്താലാണ് നമ്മുടെ ആരോഗ്യം മുന്നോട്ട് പോകുകയുള്ളൂ അത് നമ്മൾ ക്ഷേമത്തിന് ആണെങ്കിലും ആരോഗ്യത്തിനും മനസികമായിട്ട് ആണെങ്കിലും നമുക്ക് വളരെ അധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഓട്ടം എന്ന് പറയുന്നത് ഓട്ടം രാവിലെ ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ജസ്റ്റ് വാമ് ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്യുന്നതും ഓടുന്നതും ഒക്കെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് ആണെങ്കിലും മനസ്സിന് ആണെങ്കിലും നമുക്ക് അത് ഒരു തണുപ്പാണ് നൽകുന്നത് അതു കൊണ്ട് തന്നെ നമുക്ക് സന്തോഷവാനായിട്ടുള്ള ജീവിതം മുൻപോട്ട് പോകാനും മുൻപോട്ട് കൊണ്ട് പോകുവാനും നമുക്ക് സാധിക്കും